ടിവി ഷോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ചിരി ഇരു ചിരി ബംബർ ചിരിയാണ് കാരണം അതെന്താണെന്ന് വച്ച് പറഞ്ഞാൽ മറ്റുള്ളവർ ഒരുപാട് ജനങ്ങളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെയും ഓരോ ആൾക്കാരുടെയും കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നൊരു പ്രോഗ്രാം തന്നെയാണ് നന്നായി ചെയ്യുന്നവർക്ക് ഒരുപാട് എൻകറേജ് കൊടുക്കും നന്നായി ചെയ്യുന്നവർക്കും മാത്രം നന്നായി ചെയ്യാത്തവർക്കും അതേപോലെത്തന്നെ എൻകറേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ അവർക്ക് ഇനിയും പറ്റുമെന്നുള്ള ഒരു ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് അതിലൂടെ എല്ലാം കാണപ്പെടുന്നത് അതുകൊണ്ടുതന്നെ എ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു പ്രോഗ്രാമുതന്നെയാണ് ഇതെന്ന് പറയണത് കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അവര് എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നത് എന്നും അതുപോലെത്തന്നെ അവർക്ക് അവരെ ചെയ്യുന്ന പെർഫോമൻസിന് അവർക്കൊരു പ്രതിഫലം കിട്ടുന്നത് അതിലൂടെ കിട്ടുന്നത് അത് ഭയങ്കര ഒരു പ്രോത്സാഹനം തന്നെയാണ് അപ്പോൾ നമ്മൾ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഒരുവട്ടം ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ അമ്പതിനായിരം കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനമാണ് കിട്ടുക അപ്പോൾ നമ്മൾക്ക് പിന്നെയും ചെയ്യണമെന്നൊരു തോന്നലുണ്ടാവും അഥവാ നല്ല നന്നായി ചെയ്യാത്തവരേയും അവരങ്ങനെ ഒരുപാട് പറഞ്ഞു ഇനിയും നന്നായിട്ട് ചെയ്യണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ നന്നായി ചെയ്തിട്ടുവരണം ഇതെല്ലാ കുറച്ചു നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്ന സ്കിറ്റുകളൊക്കെ ആയിരിക്കണം എന്നവർക്കൊരു ഒരു പ്രോത്സാഹനം നൽകുകയാണതിലൂടെ ചെയ്യുന്നത്